എന്തായാലും ഓർഡർ ചെയ്ത സാധനം കി നന്നായിട്ടുണ്ട് കിട്ടി ഓക്കെ പൊട്ടിച്ചു നോക്കിയപ്പോൾ കുഴപ്പമില്ല നല്ലതാണ് ഹും അത് ഉപയോഗിക്കാൻ പറ്റും വലിയ ഈട് ഉണ്ടാകുമെന്ന് വിചാരിക്കണു ഷൂവായി നിൽക്കത്തെ അത്ര വലിയ പ്രശ്നം ഒന്നുമില്ല കളറും കറക്റ്റ് ആണ് അതിന്റെ സൈസും കറക്റ്റ് ആണ് നമ്മള് ഓർഡർ ചെയ്ത അതേ സാധനം തന്നെയാണ് വന്നേക്കുന്നത് ഏഹ് കാണാൻ കുഴപ്പമൊന്നുമില്ല ഭംഗിയുണ്ട് സ്റ്റിച്ചിങ്ങും കുഴപ്പമില്ല